ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ഞങ്ങളുടെ ഗ്ര മതഗ്രന്ഥമായ ബൈബിളിൽ നന്നായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് എപ്പോഴും ശരീര ശുദ്ധി വേണം പ്രഭാതത്തിൽ ഉണർന്ന് ദൈവത്തെ അന്വേഷിക്കണം ജോലി ചെയ്യണം മടിയ അലസരായി ഇരിക്കരുത് അലസന്മാർ ഒത്തിരി ഭക്ഷിക്കരുത് ഒത്തിരി ഭക്ഷണം നമ്മുടെ ശരീരത്തിനു വേണ്ടതില് കൂടുതല് ഭക്ഷിക്കരുത് നല്ല കാര്യങ്ങള് മനഃസുഖം ദൈവിക കാര്യങ്ങളില് മനസ്സെപ്പോഴും ശ്രദ്ധ ശ്രദ്ധിച്ചിരിക്കണം മറ്റുള്ളവര്ക്ക് നന്മ ചെയ്യണം നമ്മള്ക്കു മനസ്സിനു സുഖമുണ്ടെങ്കിൽ സന്തോഷമുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്ത് അസുഖം പിടി ബാധിക്കുകയില്ലെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എപ്പോഴും ദൈവത്തോടു ചേർന്നു ദൈവം നമുക്കു തന്നിരിക്കുന്ന കൽപ്പനങ്ങൾക്ക് അനുസൃതമായി ജീവിക്കണം ദൈവം തന്നിരിക്കുന്ന പത്തു കൽപ്പനകളില് നമ്മുടെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് ആ കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്കെങ്ങനെ എപ്പോഴാണ് അസുഖം ഉണ്ടാകുന്നത് അസുഖം ഉണ്ടാകാനുള്ള കാരണം അതങ്ങനെ അസുഖങ്ങൾ നമുക്ക് എങ്ങനെ പരിഹരി മാറ്റാൻ പറ്റും ഇതൊക്കെയാണ് ഒത്തിരി കാര്യങ്ങള് നമ്മളുടെ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് ബൈബിള് തന്നെ നമ്മൾ ബൈബിളിലെ ഓരോ വാക്യങ്ങളും നമുക്ക് ആരോഗ്യവും സമാധാനവും സന്തോഷവും തരുന്ന കാര്യങ്ങളാണ് പ്രഭാഷങ്ങളും സുഭാഷിതങ്ങളും സുഭാഷിതങ്ങള് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും എന്തു കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് സുഭാഷി ത്തില് പറയുന്നത് ഓരോ ദിവസവും ഓരോ ചാപ്റ്റര് വായിച്ചാൽ നമുക്ക് ഏതുരീതിയില് നമ്മൾ ജീവിക്കണം എന്നു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഒത്തിരി മിതമായ ഭക്ഷണം മിതമായ ഭക്ഷണം അതാണ് ശരീരത്തിന്റെ ഏറ്റവും വലിയ ആരോഗ്യം എന്നാണ് ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നത് മദ്യപാനം ഭോജന പ്രിയനും ദാരിദ്ര്യത്തിലകപ്പെടും അവനൊരിക്കലും അവനു കീറത്തുണി ഉടുക്കേണ്ടി വരും അവൻ ഒരിക്കലും ധനവാനാകുകയില്ല ഇതൊക്കെ എല്ലാം ശരീരത്തെ സംബന്ധിച്ചു തന്നെയാണ് പറയുന്നത് നമ്മളെങ്ങനെ ജീവിക്കണം എന്നുള്ള നല്ല സ്പഷ്ടമായും സ്ഫുടമായും ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഓക്കേ താങ്ക് യൂ